ആ സുജിയുടെ മാലിന്യ ശേഖരണ പ്ലാൻറ്റ് അല്ലേ ആ ഞങ്ങളുടെ വീട്ടിൽ സ്വിജി തന്നെ വിതരണം ചെയ്ത ബാർബിക്യൂ പാർട്ടിയുടെ ഭക്ഷണ അവശിഷ്ടങ്ങളുണ്ട് വീടിൻ്റെ പരിസരം പൊതുവേ അല്പം വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു കൊണ്ട് പോകേണ്ടതുണ്ട് ഇന്നുതന്നെ വരുമല്ലോ അല്ലേ എത്രയാണ് അതിന് നിങ്ങളുടെ ഫീസ് ഓ പതിനഞ്ച് രൂപായോ ഓ കിലോയ്ക്ക് ഓക്കെ ഒരു നാൽപ്പത് കിലോ ഓളം വേസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നു അതിന് പറ്റുന്ന സംവിധാനവുമായിട്ട് ഉടനെ എത്തിച്ചേരുക ഫീസ് ഉടനെ തന്നെ നൽകാവുന്നാണ് ഓക്കെ താങ്ക് യൂ